ചെറുപ്പം മുതലേ അമ്മയുടേയും അമ്മാമ്മയുടെയും കൂടെ വളർന്നതുകൊണ്ടാവാം പാചകത്തിൽ എനിക്ക് നല്ല ഒരു കഴിവുണ്ടായിരുന്നു കഴിവല്ല ഒരു താൽപ്പര്യം ഉണ്ടായിരുന്നു അതുപോല തന്നെ പാചകം ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാത്തിൻ്റെ കറികളും ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു എനിക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയാവുന്നത് മീൻ കറിയാണ് നല്ല രീതിയിൽ ഞാൻ മീൻ കറി വെക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാണ് ഞാൻ ഓരോ തവണ വെക്കുമ്പോഴും എല്ലാവരും എന്നെ അഭിനന്ദിക്കാറുണ്ട് അവർക്ക് വളരെയധികം എപ്പളും തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇത് ഒരു ഭക്ഷണപദാർത്ഥം മീൻ കറി തന്നെയാണ് അതുപോലെ തന്നെ ഇത്രയും ഒരു ഒരു പാചക പാചകത്തിൻ്റെ ഒരു കാലയളവിനുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഉചിതമായെടുത്ത് പറയാൻ കഴിയുക എന്നത് ഞാൻ ഒരു രണ്ട് മാസം മുന്നേ

ഒരു രണ്ടര മണിക്കൂറാണ് എനിക്ക് തോന്നുന്നു അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു എന്താ ഒരു പ്രക്രിയയല്ല ബിരിയാണി ഉണ്ടാക്കുക എന്നത് അതിൽ ഞാൻ എനിക്ക് പാളിപ്പോയത് എവിടെ പാളിപ്പോയ അല്ലങ്കിൽ സമയം നീണ്ട് പോയത് എവിടെയാണെന്ന് വെച്ചാൽ

അത് ചിക്കൻ ഞാൻ ആദ്യമേ അരിയൊക്കെ കുതിർത്ത് വെച്ച് ആ ഒരു രീതിയിലാണ് അരി കുതിർത്ത് വെച്ച് അങ്ങനെ ആ രീതിയിലാണ് ഉണ്ടാക്കിയത് അരി കുതിർത്ത് പിന്നെ ചിക്കൻ ആണെങ്കിലും വറുത്ത് വറുത്തെടുത്ത് കറിയൊക്കെ വെക്കണമായിരുന്നു അപ്പം വറുത്തെടുത്ത് പിന്നെ വന്നപ്പത്തേന് സമയം അധികമായിപ്പോയി പിന്നെ ചിക്കൻ സവാളയൊക്കെ അരിയാനാണെങ്കിലും അരിഞ്ഞ് ഒരുപാട് സവാളയുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഓരോന്നിനും ഓരോ ഇതാണ് ബിരിയാണിക്ക് ഇടാനുള്ള സവാള ഒരു രീതിയിൽ വറുക്കണം കോഴിക്കറിക്കകത്ത് ഇടാനുള്ള സവാള വേറെയൊരു രീതിയിൽ വറുക്കണം പിന്നെ അതിനൊപ്പം കഴിക്കാനുള്ള സാലഡിനുള്ള അതും വേറെ രീതിയിൽ ഉണ്ടാക്കണം അതിനൊക്കെ കുറച്ച് ടൈം അധികം ഏറെ എടുത്തു പിന്നീട് പിന്നീട് പിന്നെ എനിക്കൊരു ഇത് വന്നത് ചിക്കൻ കറിയുടെ ടൈമിൽ തേങ്ങാ വറുത്തരച്ചത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാപ്പോൾ തേങ്ങ അരച്ച് ഞാൻ ഉണ്ടാക്കി വറുത്തരച്ചത് ഞാനുണ്ടാക്കി പക്ഷേ അതിന് ലേശം എരിവ് കൂടിപ്പോയി ഉപ്പ് എരിവും കൂടിപ്പോവുകയും ചെയ്തു കാരണം ഞാൻ കല്ലുപ്പാണ് അതിൽ ഇട്ടത് അപ്പോൾ കല്ലുപ്പ് അത്രയും വേണ്ടിയിരുന്നില്ല അതൊരു പൊടിയിലോട്ടിട്ടപ്പത്തേനും അത്രയും എനിക്കത്രയും ആവശ്യമില്ലായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു ഇത് എരിവ് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എരിവും ഉപ്പും മാറ്റിയെടുക്കാനായിട്ട് പിന്നീട് ഞാനതിൽനിന്ന് തേങ്ങാപ്പാലിൽ ഇതാക്കുകയും ചെയ്തു തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചപ്പോൾ പിന്നീട് തേങ്ങാ ചിരകി തേങ്ങാപ്പാൽ എടുത്ത് അത് ചിക്കൻ കറിയിലോട്ട് സംയോജിച്ച് ചെയ്തപ്പത്തേനും എനിക്കൊരുപാട് ടൈം എടുത്തു പിന്നെ ആ അതിൽ അതിൽ അതിൽ അതിൽ എടുത്തപ്പത്തേന് പിന്നീട് അതിൽ ഇറച്ചിയുടെ ഇതായ ഒരു രുചി വരാത്തത് കൊണ്ടും ചിക്കൻ ഒരു നമ്മള ബിരിയാണി ചിക്കൻ്റെ ഒരു ഇത് വരാത്തത് കൊണ്ടും ഞാനതിൽ പിന്നീടും വീണ്ടും ഞാനതിലേക്ക് ഞാൻ കുറച്ച് മസാലക്കൂട്ടുകൾ പിന്നീട് ഞാനത് മസാലക്കൂട്ടുകളായിട്ടുള്ള കറുകപ്പട്ട ഗ്രാമ്പു പെരുംജീരകം ഇവയെല്ലാം ഞാൻ വറുത്തെടുത്ത് രണ്ടാമതും പൊടിച്ച് ചിക്കന് അകത്തോട്ട് ചേർത്ത് ചിക്കന് അകത്തോട്ട് ചേർത്ത് അതിന് മുൻപ് തന്നെ ഞാൻ ചിക്കൻ ചേർത്ത് വെച്ചിരുന്നു പക്ഷേ അത് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ ഇതിൽ വെക്കാൻ ഇത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉപ്പും എന്താ എരിവും കൂടിപ്പോയത് കൊണ്ട് എനിക്ക് ഇതൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പത്തേനും അതിൻ്റെ രുചിക്ക് വ്യത്യാസം വന്നു മസാലയുടെ കുറവ് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്തത് എന്ത് മസാല പിന്നീടു എനിക്ക് യോജിപ്പിക്കേണ്ടി വന്നത് എന്നിരുന്നാൽ കൂടി ഞാൻ ഒരു ഒരു മണി ആയപ്പം തൊട്ട് തുടങ്ങിയ പണി പണി നാലുമണി ആയപ്പത്തേനാണ് എനിക്കെന്തായാലും ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയത് അത് ഇത്രയും സമയമെടുക്കുമെന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽത്തന്നെ ഒരു ബിരിയാണിയുടേതായ ഒരു തനതായ രുചി എനിക്ക് അതിൽനിന്ന് കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു നല്ലൊരു ഒരു വ്യത്യസ്ത തരമായിട്ടുള്ളൊരു ഇതായിരുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാ ഒരു പ്രത്യേക രുചിയുള്ളൊരു ബിരിയാണി ആയിരുന്നു അന്ന് ഞാനുണ്ടാക്കിയത് അതാണെങ്കിൽ കൂടിയും അവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ഒരു വ്യത്യസ്തതരമായൊരു ബിരിയാണി എന്ന് വീട്ടിലിങ്ങനെ പറയുകയുണ്ടായി അത് എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും വീട്ടിൽ ആ ഒരു രീതിയിലല്ല ഒരിക്കലും ബിരിയാണിയുണ്ടാക്കുന്നത് പക്ഷേ എനിക്കന്ന് എൻ്റെയൊരു ആദ്യമായി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എൻ്റെയൊരു ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു എൻ്റെയൊരു പ്രവൃത്തി ഫലം അങ്ങനെയാണ് വന്നത് പിന്നീട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയും പിന്നീട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയും നല്ല രീതിയിൽ ബിരിയാണി വരുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയമെടുക്കാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണി ചെയ്തെടുക്കാൻ കഴിയും ബിരിയാണി ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഒരുപാട് സമയമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഇന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം അതിന് ശേഷം മൂന്നോ നാലോ തവണ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ അധികം നല്ലതായി വന്നിട്ടുമുണ്ട് ഏതൊക്കെ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രീതിയിലിടണമെന്നും എത്രയെത്ര അളവിലിടണമെന്നും എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ചെയ്യാനായിട്ട് ബിരിയാണി ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ സമയം കൂടുതൽ എടുക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനിയും മുന്നോട്ടേക്കാണെങ്കിലും ആദ്യം ഞാൻ വച്ചൊരു ബിരിയാണിയുടെ രുചി അത് ഒരു വ്യത്യസ്തതരമായത് കൊണ്ട് തന്നെ അത് ഞാൻ ഇനി എനിക്ക് പരീക്ഷിക്കാം കാരണം ബിരിയാണികൾക്ക് രുചികൾ നൽകുന്നത് വേറെ വ്യത്യസ്തതരം ഒരു രീതിയിലും ഓരോ സംസ്ഥാനത്തും ഓരോ ഇതിലും രാജ്യത്തും വ്യത്യസ്തതരമാക്കുന്നത് അവയുടെ മസാലക്കൂട്ടുകളൊക്കെ തന്നെയാണല്ലോ അതുപോലെത്തന്നെ എൻ്റെ ബിരിയാണിക്കും ആ ഒരു ഞാനാദ്യമായി ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഇന്നും ഞാൻ ഞാനൊരു എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നത് ഒരു തരം ബിരിയാണിയാണ് കാരണം എന്താണ് വെച്ചാൽ ഒരു വ്യത്യസ്തതരമായൊരു ബിരിയാണിയായിരുന്നു അതെ ഇന്നെനിക്ക് ഏത് രീതിയിൽ ഏതൊക്കെ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാമെന്നെനിക്ക് വളരെ നന്നായിട്ട് അറിയാം